എനിക്ക് ഫോട്ടോഗ്രാഫിയേക്കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഇതൊന്നും ആയിട്ടില്ല പക്ഷേ എനിക്കീ സഞ്ചാരത്തിലേ നമ്മുടെ സന്തോഷ് ജോർജ്ജ് കുളങ്ങര സ്വന്തമായിട്ട് ക്യാമറയെടുത്താണ് ഫോട്ടോഗ്രാഫിയെടുത്തതും പുള്ളിയുടെ ചാനലിൽ വളർച്ചയാണ് പുള്ളിയാണ് എൻറ്റെയൊരു പ്രചോദനം എന്നു പറയാം എനിക്ക് പണ്ടു തൊട്ടേ ഞാനിങ്ങനെ ഫോട്ടോ എടുക്കുമായിരുന്നു മീൻസ് പുള്ളി വീഡിയോഗ്രാഫിയാണ് മെയിൻ അല്ലാണ്ട് പുള്ളിയുടെ ഫോട്ടോഗ്രഫി കൊണ്ട് ഇൻസ്റ്റയിൽ പേജ് തന്നെയുണ്ട് ഇൻസ്റ്റയിൽ അതേ പോലെനിക്ക് എനിക്കെന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതേ പോലെ ഫോട്ടോയെടുക്കുന്നതിൽ എനിക്കൊരു ഒരു സന്തോഷമെനിക്ക് കിട്ടുന്നുണ്ടപ്പം അവരൊക്കെത്തന്നെ അവരുടെയൊക്കെത്തന്നെ നല്ലൊരു ഫോട്ടോ ആസ്പ്പെയറാക്കിത്തന്നെ എനിക്കങ്ങനെടുക്കണം എനിക്കങ്ങനെ ചെയ്യണമെന്നുള്ളാഗ്രഹം കൊണ്ടാണ് പിന്നെൻറ്റൊരു കസിൻ ചേട്ടനിതേ പോലെ ഫോട്ടോഗ്രാഫി ഡിഗ്രിയെടുത്തിട്ടുണ്ട് പക്ഷേ പുള്ളിക്ക് പുള്ളിക്കിതേ പോലെ ഈ നാട്ടിൽ ഇതിന് വലിയ സ്കോപ്പില്ല ജോലി കിട്ടത്തില്ലയെന്നാണ് പറയുന്നത് കാരണം പുള്ളിക്കിവിടെ കിട്ടില്ല പുള്ളിയിപ്പം പുറത്താണ് അപ്പം അതു കൊണ്ട് എന്താണെന്നു വെച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് അതിനോട് പഠിക്കാനെനിക്ക് താല്പര്യമില്ല കാരണം എനിക്കിപ്പോൾ ചെറുപ്പത്തിലുണ്ടായൊരനുഭവം പുള്ളിയുടെ അതു കൊണ്ട് എനിക്കങ്ങനെ തോന്നിയില്ല പക്ഷേയെനിക്ക് സംഭവമിഷ്ടമാണ് മീൻസ് എനിക്ക് ഫോട്ടോഗ്രാഫി ചെയ്യാനും ഫോട്ടോഗ്രാഫി ഓരോ സ്ഥലങ്ങളിൽ പോയി എക്സ്പ്ലോർ ചെയ്ത് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാനും അതിൽ നിന്നു കിട്ടുന്ന ലൈക്കും കാര്യങ്ങളും പിന്നതിനൊക്കുപരി നമുക്കത് കാണുമ്പം നമ്മുടെ നമ്മൾ എടുത്തൊരു ഫോട്ടോയ്ക്ക് നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ അതാണ് അതിന് വേണ്ടിയാണ്